ഞങ്ങള് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞങ്ങള്ക്ക് ഒരു പീരീഡ് ചിത്രരചനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഞങ്ങള്ക്ക് മാറ്റി വയ്ക്കുമായിരുന്നു അപ്പോള് ഞങ്ങള് സ്കൂള് വിടുന്നതിന് ഒരു ഹവര് മുമ്പായിരിക്കും ഞങ്ങള്ക്ക് ആ ചിത്രരചന മത്സരം വരുന്നത് അപ്പോള് ഞങ്ങള് സന്തോഷത്തോടുകൂടി ചെറുപ്രായത്തിൽ തന്നെ പല കാർട്ടൂൺ ചിത്രങ്ങളും ഒരു മരം അല്ലേ ഒരു ആകാശം അങ്ങനെ ചില ചില ഭാവങ്ങളൊക്കെ കാണും അപ്പോള് അന്നും നമ്മുടെ ആ ചെറുപ്രായത്തിൽ നമുക്കൊന്നും അറിയാൻ മേലാത്ത പ്രായമല്ലേ അപ്പോള് നമ്മളെ നമ്മുടെ നമ്മുടെ ഭാവനയിലൊത്ത് നമ്മൾ നോക്കുമ്പോള് എന്തോ കിഴക്കൊരു സൂര്യൻ ഉദിച്ചിരിക്കുന്നു അതിനു താഴെയൊരു കായല് കടല് ഒരു തെങ്ങ് ആ തെങ്ങില് രണ്ട് മൂന്ന് തേങ്ങ പിന്നെ ഒരു വള്ളം വലവീശുന്നു ഇതാണ് ഞങ്ങളുടെ ജീവിത അനുഭവം അതൊന്നു നല്ല രീതിയിൽ ഞങ്ങളങ്ങു വരയ്ക്കുമായിരുന്നു